യെസ് അതെ ആ എന്താണ് ടീച്ചറെ ആ പറഞ്ഞോളൂ അവൾക്ക് എന്നാ അവിടെ വന്നിട്ട് താൽപര്യമില്ലെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലേ അത് ശരി ഞാൻ പറഞ്ഞു കൊടുക്കാം ടീച്ചറെ ഇവിടെ വന്നും അവള് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഞാൻ പ്രോൽസാഹനം കൊടുക്കാറുണ്ട് പക്ഷേങ്കില് ഒരു മടിയാണ് കാണിക്കുന്നത് ഡാൻസ് പഠിക്കാൻ വരുന്നതിനോട് അതെ അപ്പം ടീച്ചറെ അവൾക്ക് ഈ ക്ലാസിക്കൽ ഡാൻസോന്ന് മാറ്റിയിട്ട് സിനിമാറ്റിക് ഡാൻസൊന്ന് ഒന്ന് പഠിപ്പിക്കാൻ പറ്റുവോ കുറച്ചൊന്ന് അവൾക്ക് അതിനോടാണ് താൽപര്യ എന്ന് തോന്നുന്നു വീട്ടിൽ വന്നാലും സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നതിനോടൊക്കെയാണ് അവള് താൽപര്യം കാണിക്കുന്നത് കാരണം സ്കൂൾ ലെവെലിലാണേലും ഇപ്പം സിനിമാറ്റിക് ഡാൻസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് സ്കൂളിലൊക്കെയാണെലും പരി പ്രോഗ്രാംസിനൊക്കെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാനും അവര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം ആ വീട്ടിൽ വന്നാൽ കൂടുതലും അവള് ക്ലാസിക്കൽ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതലും സിനിമാപാട്ടൊക്കെ ഇട്ട് സിനിമ ഡാൻ സിനിമാറ്റിക്ക് ഡാൻസ് കളിക്കുന്നതിനോടാണ് അവള് താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിനോടൊന്ന് ചോദിച്ചത് അതുകൊണ്ടായിരിക്കും അവള് താല്പര്യക്കുറവ് കാണിക്കുന്നത് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ടുള്ള താൽപര്യക്കുറവ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നാലും എൻ്റെ വലിയൊരു ആഗ്രഹവായിരുന്നു അവളെ ഒന്നു പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തി കാണണം എന്നുള്ളത് അപ്പോൾ അതിന് മറ്റു കുട്ടികൾക്ക് അവള് ശല്യമുണ്ടാക്കുന്നുണ്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് ശല്യം ചെയ്യുന്നുണ്ടോ അവള് ഉം ഉം ഞാനും അവളോട് വീട്ടിൽ വരുമ്പോൾ ഒന്ന് സംസാരിക്കട്ടെ ഇന്ന് സ്കൂൾ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ അവളോട് ഒന്ന് പറയാം കാരണം എന്തായാലും എനിക്ക് അവൾടെ അരങ്ങേറ്റം നടന്നു കാണണം അതെൻ്റെ വലിയൊരു ആഗ്രഹവാണ് അ കൂട്ടത്തിൽ കൂട്ടത്തിൽ അതിനോടൊപ്പം തന്നെ സിനിമാറ്റിക്ക് ഡാൻസും കൂടെ ഒന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ ടീച്ചറിനെ കാണാൻ അങ്ങോട്ടൊന്നു വരാം കേട്ടോ ഓക്കെ എന്നാൽ ഓക്കെ